മലയാള ഭാഷേനെ പ്രോൽസാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൽ കെ ജി മുതൽ സ്കൂളുകളിൽ കെ ജി മുതൽ പ്ലസ് ടു വരെ എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളും മലയാള ഭാഷ പഠിക്കണമെന്നുള്ള ഒരിത് നിർബന്ധം ആക്കുക പിന്നെ സ്കൂളുകളിൽ മത്സരങ്ങളിൽ മലയാളത്തിലുള്ള കഥകളും കവിതകളെല്ലാം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക കൂടുതൽ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക പിന്നെ കുട്ടികളെ കൊണ്ട് മലയാള ഭാഷേൻ്റെ നമ്മുടെ മാതൃഭാഷയാണെന്നും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് പോസ്റ്ററുകൾ തയ്യാറാക്കിച്ച് ക്ലാസ്സുകളിൽ തൂക്കിയിടുക പിന്ന സംരക് മലയാള ഭാഷേനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക മലയാളം എന്ന് പറഞാൽ നമ്മുടെ മാതൃഭാഷയാണെന്നും അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നും അങ്ങനെയെല്ലാം പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കൊടുക്കുക ഇങ്ങനെയെല്ലാം ചെയ്താൽ തന്നെ കൂടുതൽ മലയാള ഭാഷയ്ക്ക് കൂടുതലൊരു പ്രാധാന്യം കിട്ടുകയും അതിനെ നമുക്ക് കാലാകാലമായിട്ട് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാം സ്കൂളുകളിലും സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ടുതന്നെ മലയാളം ക്ലാസ്സിൽ മലയാളം മാത്രം പറയിപ്പിച്ച് കൊണ്ടും അങ്ങനെയെല്ലാം അതിനെ സംരക്ഷിക്കാം